ഞാനിന്നു പറയാൻ പോകുന്നത് എൻ്റെ നാടിനെക്കുറിച്ച് തന്നെയാണ് എൻ്റെ നാട് അല്ലെങ്കിൽ എൻ്റെ വീട് മുണ്ടൂരാണ് പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ അപ്പോൾ എൻ്റെ വീടിനടുത്ത് തന്നെയാണ് പാലക്കുഴി അമ്പലം എന്നൊരു അമ്പലമുണ്ട് അപ്പോൾ എൻ്റെ മുത്തശ്ശന്മാരായിട്ട് പറഞ്ഞു തന്നിട്ടുള്ള കഥയാണ് ഇപ്പോൾ പാലക്കിഴിൽ ഭഗവതി എന്നു പറയണ ഒരു ദൈവം എന്നൊരു സങ്കല്പം ഈ പ്രദേശത്തു വന്നിരുന്നു ഈ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു അപ്പോൾ അവരെ ആക്രമിക്കുവാൻ വേണ്ടിയിട്ടൊരു പുറത്തുനിന്നുള്ളൊരു രാക്ഷസന്മാരുകളുടെ ഒരു കൂട്ടം ഈ ദേശത്തെ ആക്രമിക്കുവാൻ വന്നപ്പോൾ പാലക്കിഴി ഭഗവതി എന്ന് പറയുന്ന ആ ഭഗവതി ആ ശക്തികളെയെല്ലാം അക്രമിച്ച് ഇല്ലാതാക്കി എന്നാണ് ഐതിഹ്യം എന്നിട്ട് അവരുടെ ആ അക്രമികളെ വെട്ടിക്കൊന്നു എന്നുള്ളതാണ് ഐതിഹ്യം ആ വെട്ടിക്കൊന്ന വാള് ഒരു കാട്ടിലേക്കെറിഞ്ഞു ആ സ്ഥലം ഇപ്പോൾ അറിയപ്പെടുന്നത് വാളയക്കാട് എന്നാണ് അപ്പോൾ അക്രമികളുടെ മുടി ഒരു പാടത്തേക്കെറിഞ്ഞു നൊച്ചുപ്പുള്ളിയെലി നൊച്ചുമുടി എന്നും അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഐതിഹ്യങ്ങൾ പാലക്കാട് ജില്ലയിലെ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാവുന്നതാണ്